സ്ത്രീകളിൽ ആർത്തവം എങ്ങനെയാണ് വീക്ഷിക്കുന്നത് വെച്ചാല് നല്ല വൃത്തിയും അതുപോലെ ആരോഗ്യത്തോടു കൂടെയും ഇരിക്കേണ്ട സമയമാണിത് ഒരുപാട് റസ്റ്റ് ആവശ്യമുള്ള സമയമാണിത് നമ്മള് ആർത്തവ സമയങ്ങളില് ഒരുപാട് ചില ചില സ്ത്രീകൾക്ക് നല്ല വയറുവേദനയും അതുപോലെ നടുവേദന അതുപോലെ ശരീര ഭാഗങ്ങള് വേദന അങ്ങനൊരുപാട് വേദനകളും ചില ചിലർക്കൊരു പ്രശ്നങ്ങളും ഉണ്ടാവില്ല ഒരു ആ ഒരു ഏഴ് ദിവസം കൊഴപ്പങ്ങളൊന്നും ഉണ്ടാവില്ല എങ്കിൽ പോലും ചിലർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അതോണ്ട്തന്നെ അവർക്ക് നല്ല റസ്റ്റ് എടുക്കണ്ട സമയാണത് പിന്നെ അതുപോലെ നല്ല വൃത്തിയും അതുപോലെ ആരോഗ്യത്തോടു കൂടി നല്ല ഭക്ഷണങ്ങള് കഴിക്കണം പഴങ്ങള് പച്ചക്കറികള് ഒരു മുട്ട പാല് എന്നിവയൊക്കെ കഴിക്കണ്ട ഒരു സമയം തന്നെ ആണ് നന്നായിട്ട് ശരീരത്തിൽ നിന്നും ആവശ്യമില്ലാത്ത ബ്ലഡ് ആണല്ലോ പൊറത്തേക്ക് പോകുന്നത് അതുകൊണ്ട് തന്നെ നല്ല ക്ഷീണൊക്കെ ഉണ്ടാവും അത് അതുകൊണ്ട് നല്ല ഭക്ഷണം കഴിക്കേണ്ട ഒരു സമയമാണ് അതുപോലെ നല്ല വൃത്തിയായിട്ട് അടിവസ്ത്രങ്ങളൊക്കെ നല്ല വൃത്തിയായി വൃത്തി ഉള്ളതായിട്ട് ഉപയോഗിക്കുകയും അതുപോലെ കുളിക്കുകയും നല്ല ശരീരം നന്നായിട്ട് നല്ല ഒരു വൃത്തിയിൽ കൊണ്ടുനടക്കേണ്ടൊരു കാലം തന്നെ അല്ലെങ്കിൽ സ്മെല്ലും അതൊക്കെ ഉണ്ടാവാൻ നല്ല ചാൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ നല്ല വൃത്തിയോട് കൂടി ഇരിക്കണ്ട ഒരു സമയങ്ങള് തന്നെയാണത് അതുപോലെ ചിലർക്ക് ഏഴ് ദിവസം അല്ലെങ്കിൽ ചിലർക്ക് അതിൽ കൂടുതൽ ദിവസങ്ങൾ ഉണ്ടാവും എങ്കിലും കണക്ക് ഏഴോ എട്ടോ ദിവസം എന്നാണ് അതിൻ്റെ ഒരിത് എങ്കിൽ പോലും ചില ആൾകാരിക്ക് പതിനഞ്ച് ദിവസം വരെ നീളാം